കേരളത്തിലെ നഗരപ്രദേശവും ഗ്രാമത്ത ത്തെ ദേശവും തമ്മിലുള്ള വിത്യാസങ്ങളൊക്കെ പറയാണെങ്കിൽ നഗരപ്രദേശം എപ്പോഴും തിരക്ക് കൂടിയവയും എപ്പോഴും ലൈവ്ലി ആയിരിക്കും എപ്പോഴും ഇവൺ നൈറ്റില് പോലും രാത്രികളില് പോലും അത് വളരെ ലൈവ് ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും പക്ഷേ ഗ്രാമപ്രദേശം എപ്പോഴും സൈലൻറ് ആയിരിക്കും നമുക്ക് എന്താ പറയുക സൈലന്റും അതുപോലെ പ്രകൃതിയും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന അവയുമാണ് ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുന്നത് നഗരപ്രദേശത്തിലെ ബിൽഡിംഗ്സ് ഒക്കെ പറയാണെങ്കിൽ വലിയ വാണിജ്യമായിരിക്കും സൂപ്പർമാർക്കറ്റുകളും അതേപോലെതന്നെ ഹോട്ട വലിയ വലിയ ഹോട്ടലുകളും ഷോപ്പിംഗ് മാൾസും എല്ലാം കൂടി അടങ്ങിയ ഒരു ഇതായിരിക്കും നഗരം എന്നു പറയുന്നത് എപ്പോഴും അവിടെ തിരക്കുണ്ടാവും നിറയെ ആൾക്കാര്ണ്ടാവും അവിടെ ജോബ് എന്ന് പറയുന്നത് വലിയ വലിയ ഫ്ലാറ്റുകളില് ഐ ടി പ്രൊഫഷണൽ ഉള്ളവർ എൻജിനീയർസ് ഡോക്ടർസ് ഇങ്ങനെയുള്ള പറഞ്ഞാൽ കുറെ ആൾക്കാര് വർക്ക് ചെയ്യണ ഒരു സ്ഥലമാണ് നഗരപ്രദേശം എന്ന് പറയണത് ഗ്രാമപ്രദേശം എപ്പോഴും എന്താ പറയുക ചെറിയ ചെറിയ വ്യവസായങ്ങളും കൃഷിയും അതേപോലത്തന്നെ ചെറിയ ചെറിയ വാണിജ്യവും എല്ലാം കൂടി അടങ്ങിയ ഒന്നാണ് ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് ചെറിയ പച്ചക്കറികടകൾ അതുപോലെതന്നെ ചെറിയ മാർക്കറ്റുകൾ അതുപോലെതന്നെ വഴിയോര വാ വാണിജ്യങ്ങൾ പിന്നെ കൃഷി അങ്ങനെയുള്ള എല്ലാം അടങ്ങിയ ഒന്നാണ് ഗ്രാമപ്രദേശം എപ്പഴും അധികം തിരക്കോ ബഹളങ്ങളോ ഒന്നു ഇല്ലാത്ത ഒരു പീസ് ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയറാണ് എപ്പോഴും ഗ്രാമ പ്രദേശത്ത് ഉണ്ടാവുക